ഇല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ഇഷ്ടത്തിനോ അതുപോലെ ഫാമിലിൻ്റെ കുടുംബങ്ങളുടെ ഇഷ്ടത്തിനും മാത്രമായിട്ടാണ് ഇത് യാത്ര ചെയ്തിട്ടുള്ളത് നമ്മളുടെ എൻ്റെ നമ്മളുടെ ഒരു മജക്ക് വേണ്ടിയും പിന്നെ ജീവിതം മുഴുവനും ഓർക്കാൻ വേണ്ടിയും മാത്രമായിട്ടാണ് യാത്ര യാത്ര ചെയ്തിട്ടുള്ളത് അതേ പോലെ നല്ല നല്ല യാത്രകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് പള്ളികളിലേക്കും മറ്റും നല്ല സ്ഥലങ്ങളിലേക്കും അതു പോലെ നല്ല എന്താണ് കായികപരമായ സ്ഥലങ്ങളിലേക്കും പിന്നെ മുംബൈ അങ്ങനെ വലിയ വലിയ സിറ്റി സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ പോയിട്ടുണ്ട് അതു പോലെ അതെല്ലാം നമ്മുടെ നമ്മുടെ സ്വന്തം ആവശ്യത്തിനും അതു പോലെ നമ്മുടെ സ്വന്തം ഒരു മജക്കും കൂടിയാണ് പോയിട്ടുള്ളത് അതു പോലെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ യാത്ര എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്നു വച്ചാൽ ഒരു ലൈഫ് ഒരു ജീവിതത്തിൽ ഉടനീളം ഉടനീളം നമ്മൾക്ക് ഓർക്കാൻ കഴിയുന്നത് കാര്യം പറയുന്നത് ചില ചില സന്ദർഭങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് യാത്രകളിലാകാം യാത്രകളിലാണ് അത് പോലെ മറ്റ് കളികളിലെല്ലാം ആയും നമ്മൾക്ക് ഉണ്ടാവാം പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു മറക്കാൻ ആവാത്ത ഒരു ചിന്താഗതി നമ്മൾക്ക് പകർന്നു തരുന്നത് പകർന്നു തരുന്നത് നമ്മളുടെ യാത്രകളിൽ തന്നെയാണ് യാത്രകളിൽ ഒരുപാട് കാഴ്ചകൾ കാണാനും അതു പോലെ സന്ദർശിക്കാനും അതു പോലെ അത് വന്ന് അത് അവിടെ പോയി അവിടെ എന്തു സംഭവിച്ചു അവിടെ എന്തെല്ലാം നടന്നു അവിടെ എന്തൊക്കെ ഉണ്ട് നല്ല പ്ലേസ് ആണോ നല്ല അല്ല നല്ല സ്ഥലമാണോ നല്ല കാണാൻ നല്ലൊരു ഇതാണോ എന്നെല്ലാം എന്നെല്ലാം ചർച്ച ചെയ്ത് ഫാമിലിയുമായി കുടുംബങ്ങളുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ ആസ്വദിക്കുകയും അതുപോലെ തന്നെ അത് കൂട്ടാരോടും പറഞ്ഞും എല്ലാം രസിക്കുന്നത് എല്ലാം യാത്രയിലൂടെ ആണ് അതുപോലെ നല്ല നല്ല യാത്ര ചെയ്യാൻ വളരെ വളരെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപെട്ടത് ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ആണ് പിന്നെ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമെന്നു പറയുന്നത് മക്ക മദിന ആണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലം കാണാൻ കാത്തിരിക്കുന്നൊരു സ്ഥലം എന്നു പറയുന്നത് മക്ക മദിന തന്നെയാണ് അതു പോലെ നമ്മൾക്ക് നമുക്ക് അതു പോലെ മറ്റ് സ്ഥലങ്ങളും കാണാൻ ആഗ്രഹമുണ്ട് പിന്നെ ബാവേലിത്തല സ്ഥലങ്ങളെല്ലാം കാണാൻ പോകണം അതു പോലെ നല്ല നല്ല ജാഗയെല്ലാം തിരഞ്ഞെടുക്കണം അതു പോലെ ലോകം മുഴുവൻ ചുറ്റണം എന്നെല്ലാം ആഗ്രഹമുണ്ട് പിന്നെ സ്ഥലത്ത് കുറേ നമ്മൾ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് വലിയൊരു അനുഭവമാണ് നല്ല അനുഭവം തന്നെയാണ് നല്ലൊരു നല്ലൊരു അനുഭവം തന്നെയാണ് അനുഭവം തന്നെയാണ് അനുഭവം തന്നെയാണ് കാരണം യാത്രകൾ നമ്മൾക്ക് സമ്മാനിക്കുന്ന വലിയ വലിയ ചിന്താഗതികളാണ് ആ യാത്രകളിലൂടെയാണ് നമ്മൾക്ക് പലതും പഠിക്കുവാനും പല മനുഷ്യന്മാരുടെ അവസ്ഥകളും എല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതു പോലെ തന്നെ യാത്ര എന്നു പറയുന്ന വളരെയേറെ വളരെയേറെ ആസ്വദിച്ചും അതു പോലെ ചില സമയത്ത് ആസ്വദിക്കാനും അതു പോലെ ചില സമയങ്ങളിൽ നമുക്ക് ദുഃഖിക്കാനും എല്ലാം കൊണ്ടും നമ്മൾക്ക് ഒരു ഒരു വലിയൊരു അനുഗ്രഹം വലിയൊരു അനുഗ്രഹം തന്നെയാണ് യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യണമെന്നുള്ളത് അത് എങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ബൈക്കിൽ കൂടിയാണ് ബൈക്ക് റൈഡ് ചെയ്തുകൊണ്ട് മുഴുവനും ഇങ്ങനെ കോഴിക്കോട് മലപ്പുറം അതു പോലെ എല്ലാം റൈഡുകൾ റൈഡുകൾ ചെയ്തുകൊണ്ട് ബൈക്കിലോ കാറിലോ അങ്ങനെ പോകാനാണ് ഏറ്റവും ഇഷ്ട്ടം അതു പോലെ ചില വണ്ടികളിലും ട്രെയിനുകളിലുമെല്ലാം പോവാനും ആശ ഉണ്ട് ഞങ്ങൾ മുംബൈ ഇപ്പം പോയിരുന്നു നമ്മൾ മുംബൈ പോയിരുന്നു അതു പോലെ കോഴിക്കോട് അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് അതു പോലെ മമ്പുറം മലപ്പുറം പിന്നെ വയനാട് പിന്നെ മൂന്നാർ അതു പോലെ നമ്മളെ തമിഴ്നാട്ടിൽ പെട്ട ഒരു സ്ഥലം കൂടി ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അതു പോലെ നല്ല നല്ല കാഴ്ചകളെല്ലാം നമ്മൾക്ക് സമ്മാനിക്കുന്നത് യാത്രകളിലാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ കണ്ടാൽ നമ്മൾക്ക് ആ അവസ്ഥ മനസിലാക്കാൻ ഈ യാത്രയിലൂടെ സാധിക്കും കാരണം യാത്രയിലൂടെ നമ്മൾക്ക് അവിടെ പോകുമ്പോൾ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് മുമ്പ് കാലം നടന്നത് അത് എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് ഈ യാത്രയിലൂടെ മനസിലാക്കാൻ സാധിക്കും അതു പോലെ തന്നെ അതു പോലെ തന്നെ യാത്രകൾ യാത്രകളിലൂടെ നമ്മൾക്ക് മുമ്പ് കാല മനുഷ്യന്മാർ മുമ്പ് കാല മനുഷ്യന്മാർ അതായത് ചരിത്രകാരന്മാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പോയി അവരെ സന്ദർശിച്ച് അവിടെ അവർ എന്തെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് നാടിന് വേണ്ടി എന്നുള്ളത് മനസിലാക്കാൻ ഈ ഒരു യാത്ര നമ്മൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നുണ്ട് അതു പോലെ യാത്ര യാത്ര എന്നു പറയുന്നത് ഒരു മജക്കു വേണ്ടിയാണ് ഞങ്ങൾ പോകാറുള്ളത് അതു അല്ലാതെ സമൂഹത്തിനു വേണ്ടി ഇതു വരെയായിട്ട് ഞങ്ങൾ പോയിട്ടില്ല സമൂഹത്തിനും മറ്റുള്ള ആവശ്യത്തിനു വേണ്ടി ഇതുവരെ ഞങ്ങൾ പോയിട്ടുള്ളത് എല്ലാം പോയിട്ടുള്ളത് നമ്മുടെ ഇത് എൻജോയ്മെൻറ്റിന് അതായത് നല്ല ഒരു ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് യാത്ര നമ്മൾക്ക് യാത്ര നമ്മൾക്കു നൽകുന്ന പാഠം എന്നുള്ളത് വലിയൊരു പാഠം തന്നെയാണ് അതിന് അതിന് യാത്ര ചെയ്യണമെന്നുള്ളത് നമുക്ക് മഷ്ടുള്ള ജീവിതത്തിൽ ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ പലപല സ്ഥലങ്ങളും ഉണ്ട് നല്ല നല്ല സ്ഥലങ്ങളെല്ലാം ഉണ്ട് ആലപ്പുഴ ആലപ്പുഴ എന്നു പറയുന്ന അവിടെ വർണ്ണിക്കാൻ അവിടെ കുട്ടനാട് എന്നു പറയുന്നൊരു കായലുണ്ട് അവിടെ നല്ല അധി സമ്പന്നമായ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത് ബോട്ടിൽ ബോട്ടിൽ പോയി അവിടെ നല്ല നിലയിൽ യാത്ര ചെയ്യുവാനും ബോട്ടിലെ എല്ലാം അനുഭവം എന്നുപറയുന്നത് വളരെയേറെ നല്ലൊരു വിഷയം തന്നെയാണ് നല്ലൊരു നല്ലൊരു നമുക്ക് അനുഭവം തന്നെയാണ് അതു പോലെ തന്നെ മറ്റുള്ള പോയി അതായത് മുംബൈ സിറ്റിയിൽ പോയി അവിടെയും ബോട്ടുകൾ കായലുകളിലെല്ലാം പോയി ഇത് ബോട്ടിലെല്ലാം ഇരുന്ന് യാത്ര ചെയ്യുന്നത് വളരെയേറെ നമ്മൾക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു ഓർത്തിരിക്കാൻ കഴിയുന്നൊരു അനുഭവം തന്നെയാണ് യാത്ര നമ്മൾക്ക് പലതും പഠിപ്പിക്കാറുണ്ട് അത് സങ്കടമായാലും മറ്റ് ആസ്വാധനമായാലും അതു പോലെ നല്ല നല്ല ചിന്തകളായാലും നമ്മൾക്ക് എല്ലാം കൊണ്ട് അനുഗ്രഹീതം എന്നു പറയുന്നത് യാത്രകളാണ് ആ യാത്ര ജീവിതത്തിലുടനീളം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളും കൂടിയാണ് ഞാൻ അത്കൊണ്ട് തന്നെ ഭാവിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകാൻ പോകാൻ തയ്യാറെടുത്തു അതു പോലെ ഫാമിലി ഫാമിലിയായിട്ടും പോയി നമ്മൾ ഫാമിലിയായി അതായത് കുടുംബങ്ങളായിട്ടും കുടുംബങ്ങളായിട്ടും കൂട്ടുകാരുമായിട്ടെല്ലാം ഞങ്ങൾ ഇത് യാത്ര ചെയ്തിട്ടുണ്ട് അതു പോലെ ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് കുടുംബങ്ങളിൽ പോകുമ്പോഴാണ് കാരണം എല്ലാ കുടുംബക്കാരും ഒത്തൊരുമിച്ച് നല്ല സന്തോഷത്തോടെ അങ്ങും ഇങ്ങും കളിയാക്കിയും പരിഹസിച്ചും അതു പോലെ തന്നെ തമാശ പറഞ്ഞും ചിരിച്ചും എല്ലാം ഒരേ പോലെ ഒരേ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ട് എല്ലാം പോവുന്നത് വളരെ സന്തോഷകരമായ ഒരു കാഴ്ച്ച തന്നെയാണ് അത് നമ്മൾക്ക് യാത്രകളാണ് അത് യാത്രകൾ നല്ല വണ്ണം നല്ല മജയായിട്ടുള്ള നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപെട്ട ജാഗമെന്നത് ആലപ്പുഴയിലേക്ക് ആലപ്പുഴയിലേക്ക് പോയി പോയ ഒരു അനുഭവം തന്നെയാണ് അതായത് നല്ലൊരു ബോട്ട് നമുക്ക് അവിടുന്ന് സംഘടിപ്പിച്ച് അവിടെ ഇതാക്കിയപ്പോൾ ഇതാക്കിയപ്പോൾ അവിടെ നിന്ന് നല്ല വണ്ണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല വണ്ണം സന്തോഷമായിട്ടുണ്ടായിരുന്നു ആ ബോട്ടിൽ കയറി നല്ലൊരു ബോട്ട് തന്നെയായിരുന്നു നല്ലൊരു അനുഭവം കൂടിയാണത് അതു പോലെ തന്നെ അതു പോലെ തന്നെ പല പല സ്ഥലങ്ങൾക്കും യാത്ര ഞങ്ങൾ പോയിട്ടുണ്ട് അത് കേരളത്തിലായാലും കേരളത്തിലെ പല ജില്ലകളിലായാലും അതുപോലെ അതർ സംസ്ഥാനങ്ങളിലും എല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട് കർണാടക തമിഴ്നാട് പോലത്തെ ജാകകളിലെല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട് മാത്രമല്ല യാത്രകൾ എന്നു പറയുന്നത് അതൊരു വലിയൊരു പാഠപുസ്തകം തന്നെയാണ് യാത്രയെ വർണിക്കാനൊക്കെ വേറെ എന്തും ഇല്ല അതു പോലെ തന്നെ എന്തെന്ന് പറയാനും എന്തെന്ന് അറിയുന്നില്ല യാത്രകൾ അത്രയും ആസ്വദിക്കുന്ന ഒരു വൃക്തിയും കൂടിയാണ് ഞാൻ അതുപോലെ ഞാൻ ആരെയും സേവിക്കാൻ വേണ്ടിയല്ല ഇതുവരെ പോയിട്ടുള്ളത് നമ്മളുടെ എൻജോയ്മെൻറ്റിന് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു ഫാമിലി എന്നു പറയുന്നത് പെരുന്നാൾ കഴിഞ്ഞ് നമുക്കൊരു പോകുന്നൊരു അവസ്ഥയുണ്ട് പോകാനുള്ള ഇത് ഉണ്ട് എന്ത് പോകാനുള്ള ഒരു എപ്പോൾ വേണമെങ്കിലും ഏത് പെരുന്നാൾ കഴിഞ്ഞ് നമ്മക്കൊരു യാത്ര ചെയ്യുന്നത് പതിവായൊരു കാര്യമാണ് അത് കൊണ്ട് ഇനി ഇപ്പോൾ ഇപ്പം പ്ലാനിംഗ് ഒന്നുമില്ല ഇനി പെരുന്നാൾ കഴിഞ്ഞ് എവിടെക്കെങ്ങും പോവാണമെന്ന് ആഗ്രഹമുണ്ട് അത് തന്നെ യാത്രയെക്കുറിച്ച് വർണിക്കാൻ വേറെ എന്തും എനിക്ക് അറിയുന്നില്ല നമ്മളുടെ പാഠപുസ്തകം വലിയൊരു പാഠപുസ്തകം തന്നെയാണ് വലിയ ഒരു അനുഭവം കൂടിയാണ് യാത്ര എന്ന് പറയുന്നത്